സ്റ്റാമ്പുകളും പഴയ കാലത്തെ നാണയങ്ങളും മറ്റു വിദേശ രാജ്യങ്ങളിലെ കറൻസികളും ഒക്കെ ശേഖരിച്ചു വെക്കുന്നത് എനിക്കൊരു ഹോബിയാണ് അത് ഒരു സന്തോഷമുള്ള കാര്യമാണ് നമുക്ക് ലോകത്തിലുള്ള ഏറെക്കുറേ ഒരു പകുതിയിൽ അധികം രാജ്യങ്ങളുടെ കണക്ഷൻസ് എൻ്റെ കയ്യിൽ നോട്ടുകൾ ഡോളറുകൾ ഒരുപാട് കറൻസികൾ എൻ്റെ കയ്യിൽ ഉണ്ട് അതും ഒക്കെ ഇടക്കിടയ്ക്കൊക്കെ നോക്കുമ്പം നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ് അതുപോലെ നാണയങ്ങൾ പഴയ ചക്രം ആ പൈസകൾ അന്നത്തെ ആ രാജ്യത്ത് ഇന്നും നമ്മുടെ അടുത്ത തലമുറക്ക് കാണാനും കേൾക്കാൻ അതിൽ കുറച്ചൊക്കെ കുറച്ചൊക്കെ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അതൊക്കെ നമ്മുടെ നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പിന്നെ കല്ലുകൾ മരതകം മാണിക്യം പിന്നെ ഡയ് ചെറിയ ഡയമണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടേ അങ്ങനെ അതൊക്കെ ഒരു അമൂല്യ ശേഖരമായിട്ട് നമ്മൾ കണക്കാക്കി അതൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് ഓക്കെ